എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വളർത്താൻ ഇഷ്ടമുള്ളത് പൂക്കളാണ് പഴങ്ങളും ഇഷ്ടമാണ് പക്ഷേ പൂക്കളോടാണ് താല്പര്യം അത് വിരിഞ്ഞു നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെ ആയിരിക്കും വലിയ നല്ല രീതിക്ക് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം വീട്ടിൽ നിറയെ ചെടികളും പൂക്കളും എല്ലാം വളർത്തുന്നതിനെ പറ്റി എനിക്ക് അതിനോടാണ് കൂടുതൽ താൽപര്യം പഴങ്ങളാണെങ്കിലും നമ്മള് കായ് ഫലം ഒരുപാട് കിട്ടും പരിപാലിക്കുന്ന പോലെ നമുക്ക് കായ്ഫലം കിട്ടും പക്ഷേ ചെടികൾ വളർത്തുമ്പോൾ അതിൻ്റെ ഓരോ പൂക്കളാണെങ്കിലും ഇപ്പം ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വരിക വരുമ്പോൾ നമ്മുടെ ഗാർഡൻ കാണുമ്പോൾ തന്നെ അവർക്ക് പ്രത്യേക ഒരു ഫീലായിരിക്കും ഒരു ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ചെടികൾ കാണുമ്പോൾ കിട്ടുന്നത് മെയിനായിട്ട് നമ്മൾ ആ ചെടികളെ എങ്ങനെ പരിപാലിക്കുന്നു അതുപോലെ ആയിരിക്കും നമക്ക് തിരിച്ച് അതിൻ്റെ പൂക്കളാണെങ്കിലും എല്ലാം കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെ ആയിരിക്കും ആ ചെടികൾ കായ്ച്ച് വിരിഞ്ഞു നിൽക്കുമ്പോഴും ചെടി നല്ല രീതിക്ക് നല്ല രീതിക്ക് പിടിച്ച് അത് വളർന്നു വരുമ്പോഴും ആ പൂക്കൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു പോസിറ്റീവ് എനർജി അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല